ഹലോ എന്റെ പേര് അനില ഞാന് പൊതുവേ ഓണ്ലൈനിന്നും പര്ച്ചേസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാന് ഇന്നിവിടെ പറയാന് പോകുന്നത് എന്റെ ഓണ്ലൈനില് നിന്നും പര്ച്ചേസ് ചെയ്ത ആദ്യത്തെ പ്രോടക്ടിനെക്കുറിച്ചാണ് അതൊരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു ആമസോണ് വഴിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഓണ്ലൈന് പര്ച്ചേസ് ചെയ്തത് അതൊരു ഡ്രസ്സായിരുന്നു ഒരു കുര്ത്തയായിരുന്നു അത് ഒരു വയലെറ്റ് കള കളര് കുര്ത്ത പൊതുവേ ഞാന് ആള്ക്കാരില് നിന്നും കേള്ക്കാറുണ്ട് ആമസോണ് അല്ലെങ്കിൽ ഓണ്ലൈന് വഴി ഡ്രസ്സൊക്കെ ഓര്ഡറ് ചെയ്താല് വളരെ മോശമായിട്ടാണ് കിട്ടാറെന്നുള്ളത് എന്നിരുന്നാലും ഞാന് എന്റെ വിശ്വാസത്തിൽ വിശ്വാസത്തില് വെച്ച് ആമസോണില് നിന്നും അത്ര അര്ജെൻറ്റ് ആയതുകൊണ്ട് ഒരു കുര്ത്ത സെറ്റ് ഓര്ഡര് ചെയ്തു എന്റെ ഓര്മയില് അത് ഒരു വര്ഷം മുന്പായിരുന്നു എന്നാണ് ഓര്ഡര് ചെയ്തപ്പോള് ആയി അതിന്റെ ഓര്ഡര് ചെയ്യുന്ന സമയത്ത് ആ ഡ്രസ്സിന്റെ എമൗണ്ട് രണ്ടായിരത്തി ഒരുന്നൂറാണെങ്കിലും ആദ്യത്തെ പര്ച്ചേസ് എന്ന നിലയിലും പ്രത്യേക ഒരു ഓഫര് എന്ന നിലയിലും എനിക്കാ ഡ്രസ്സ് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപക്ക് കിട്ടി രണ്ട് ദിവസത്തിനുള്ളില് തന്നെ അത് ആ ഡ്രസ്സ് എന്റെ വീട്ടിലെത്തുകയും ചെയ്തു എന്നെ ഞെട്ടിച്ച ഏറ്റവും രസകരമായ ഒന്നായിരുന്നു ആ ഡ്രസ്സിന്റെ ക്വളിറ്റി വളരെ നല്ലതായിരുന്നു പിച്ചറില് അല്ലെങ്കില് ആ ഫോട്ടോയില് പറഞ്ഞ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ള മെറ്റീരിയലും ജൂട്ട് മെറ്റീരിയലും അതിന്റെ സൈഡിലുള്ള ഹാന്ഡ് വര്ക്കും വളരെ മനോഹരമായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് ആ ഡ്രസ്സ് മറ്റുള്ളവര്ക്കും റെക്കമെന്റ് ചെയ്യാനും പറ്റി ഞാനത് പണ്ടൊരു ഫങ്ങ്ഷന് ഇട്ടോണ്ട് പോയി കഴിഞ്ഞപ്പോള് എല്ലാവരും അതെവിടുന്നാ വാങ്ങിച്ചേന്നുള്ള ചോദ്യം കുറെ ഞാന് കേട്ടിരുന്നു അതാണ് എന്റെ ആദ്യത്തെ പ്രോടക്റ്റ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന അനുഭവം